ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തി ഏഴ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ജനുവരി ഒന്ന്